നമ്മടെ നാട്ടിലിപ്പോൾ ദേശീയ മത്സര പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് തയ്യാറെടുക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഇനിയിപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ നാട്ടിലെ രവി മാഷെന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ആ ആൾ റിട്ടയേർഡ് ഹൈസ്കൂൾ മാത്സിൻ്റെ ടീച്ചറായിരുന്നു ആളൊരു കോച്ചിങ് സെൻ്ററ് പോലൊരു സെറ്റപ്പാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഇപ്പോൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വന്നിട്ട് പഠിക്കാനാണെങ്കിലും കമ്പൈൻ സ്റ്റടിക്കാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെൻ്റർ പോലെ അവിടെ ഈ നെറ്റ് എക്സാം അതുപോലത്തെ നമ്മുടെ എസ്എസ്സി എക്സാംസ് മറ്റേ എസ്എസ്ബിൻ്റെ എക്സാം ആർമീൻ്റെ എക്സാം റെയിൽവേൻ്റെ എക്സാം അങ്ങനത്തെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കോച്ചിങ് ക്ലാസ് നൽകുന്നുണ്ട് അതായത് ആൾക്ക് ഏകദേശം ആൾടൊരു എസ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏതാണോ കറക്റ്റായിട്ട് പഠിക്കേണ്ട ആ കാര്യ ആ ടോപ്പിക്കുകളും കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരെ കോച്ച് ചെയ്ത് അതായത് താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ പോയാൽ പഠിക്കും എന്താന്ന് വെച്ചാൽ അവിടെ താല്പര്യമുള്ള കുട്ടികളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് മാത്രമേ എടുക്കുള്ളൂ കൃത്യമായി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പഠിക്കും ഉറപ്പുള്ള ഉറപ്പാക്കിയിട്ട് മൂപ്പർ എടുക്കോളു അവിടെ കോച്ചിങ് ഫുള്ളായിട്ട് ഫ്രീ ആണ് അവിടെ രാവിലെ രണ്ട് ബാച്ചാണുള്ളത് അപ്പ രാവിലെ ഒരു ബാച്ച് വൈകുന്നേരം ഒരു ബാച്ച് അതുപോലെ തന്നെ നമ്മടെ കോട്ടയം ഗ്രൗണ്ടിൽ ഒരു സാറുണ്ട് ആ ആളിപ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കോട്ടയം സ്കൂളിലെ മാഷ് തന്നെയാണ് ആൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് കൊടുക്കണുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ട് എന്തൊക്കെ ചെയ്യണം അതുപോലെ പിന്നെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ ചാട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതോടു കൂടി ഫിസിക്കൽ അതുപോലെ മറ്റേ റിട്ടൺ എക്സാമും പാസ്സ് ആവാൻ പറ്റും ഫിസിക്കൽ എക്സാമും പാസ്സാവാൻ പറ്റും പിന്നെ അപേക്ഷിക്കാൻ ആയിട്ട് ഇതേപോലെ നമ്മളെ ജനസേവാ കേന്ദ്രങ്ങളും അപേക്ഷ മറ്റേ അക്ഷയ പോലത്തെ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മടെ കുട്ടികൾക്ക് അത്യാവശ്യം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ തന്നെ അധികം പൈസയൊന്നുമിലാണ്ട് ചെയ്തു കൊടുക്കണ ആൾക്കാരാണ് മെയിനായിട്ട്